ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങനെ ട്രക്കിങ്ങിന് ഒക്കെ പോകുമ്പോൾ കൂടുതലായിട്ടും നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ എന്താ പറയുക മാ ഹിൽ ടോപ്പിലേക്ക് പോകുമ്പോഴാണ് നമ്മള് സാധാരണ അങ്ങനെ റിസ്ക് എടുത്ത് കയറാറുള്ളൂ അപ്പം ഫോറസ്റ്റ് ഏരിയ ഒക്കെയാണെങ്കിൽ പ്രത്യേകിച്ച് വന്യമൃഗങ്ങൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വന്യമൃഗങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയറുമ്പോൾ എന്താ പറയുക മനസ്സിന് നല്ലൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ നോക്കുകയാണെങ്കിൽ വൈൽഡ് ലൈഫ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ പോകുമ്പോൾ നമ്മള് കൂടുതലും ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളാണ് അപ്പോൾ അതെനിക്കൊരു വലിയ ഒരു വെല്ലുവിളി ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഈ ഉയർന്ന മലകള് അങ്ങനെ ഉള്ളതിലേക്ക് കയറി കഴിയുമ്പോൾ ഈ മഴയൊക്കെയുള്ള സീസൺ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തെന്നി വീണ് കഴിഞ്ഞാൽ നമുക്ക് നല്ല അപകടങ്ങളും സാധ്യതയൊക്കെ കൂടുതലുള്ള കാര്യങ്ങളാണ് അതൊക്കെ അപ്പം അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടാവാറുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ ആയിട്ട് ബുദ്ധിമുട്ടും എന്താ പറയുക മാനസികമായിട്ടും നേരിടേണ്ടിവന്ന വെല്ലുവിളികൾ ഒക്കെ ഇത്തരത്തിൽ ഉള്ളതാണ് പിന്നെ ഹൈക്കിങ്ങ് ഹൈക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമ്മൾ ട്രക്കിങ്ങിന് ഒക്കെ പോകുമ്പോൾ വെള്ളത്തില് നീന്താൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ഒഴുക്കും കാര്യങ്ങളും ഒക്കെയാണ് അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള മാനസികപരമായിട്ടുള്ള വെല്ലുവിളികൾ ഞാൻ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട്